ഹലോ ഇത് ജോസ് വെജിറ്റബിൾ ഷോപ്പല്ലേ ആ ഞാൻ മങ്ങാട്ടരേന്നാണ് വിളിക്കുന്നത് എനിക്കൊരു ഒരു കിലോ തക്കാളി ഒരു കിലോ സവോള ഒരു കിലോ വെണ്ടക്ക ക്യാരറ്റ് ഒരു കിലോ ബീറ്റ്റൂട്ട് പിന്നെ ഒരു കിലോ പടവലങ്ങ ഒരു കിലോ അച്ചിങ്ങ ഇത്രേം വേണം അപ്പോൾ ഇന്നത്തെ റേറ്റെങ്ങനെക്കെ പറയാൻ പറ്റോ പച്ചക്കറീടെ ഒരു കിലോ ആ സവോളയോ മുപ്പത്തെട്ട് രുപ വരും അല്ലേ ബാക്കി വെണ്ടക്കക്കെങ്ങനെന്നെ ആ ആണല്ലേ ആ നാൽപ്പത് രുപ ആ കാരറ്റും ബീറ്റ്റൂട്ടൊക്കെ എങ്ങനെയാണ് തൊണ്ണൂറ് രൂപ കുറയോ കുറക്കോ നമ്മളിങ്ങനെ ബൾക്ക് ആ ആ ആ പച്ചമുളകൊക്കെ എങ്ങനെ പച്ചമുളക് ഇഞ്ചി എങ്ങനെയാണ് നൂറ് രൂപ ഓ കൂടിയില്ലേപ്പേ ആ അച്ചിങ്ങ നാടനെത്രയാണ് അച്ചിങ്ങ നാടനച്ചിങ്ങെത്രയാണ് നൂറ്റിരു നോർമൽ സാധനമാണെങ്കിലോ മറ്റേതാണെങ്കിലോ അറുവരൂവേള്ളൂല്ലേ ആ അപ്പോൾ എനിക്കെന്നാ സവോള ഒരു കിലോ തക്കാളി ഒരു കിലോ ബാക്കി പറഞ്ഞതൊക്കെ ഒരര അര കിലോ വെച്ചെടുത്തോട്ടാ ഓരോ കിലോ ബാക്കിത്തെല്ലാ അര കിലോ വെച്ച് ആ ആ ആ അച്ചിങ്ങ അര കിലോ ആ ബീറ്റ്റൂട്ട് ക്യാരറ്റ് ഇഞ്ചി ഇഞ്ചി പച്ചമുളക് കാല് കാല് മതി കാൽ കിലോ കാൽ കിലോ മതി വില കൂടുതലല്ലേ ആ ആ ആ ഇല്ല ഇല്ല അല്ല മുരിങ്ങക്കായ് വേണമെങ്കിൽ മുരിങ്ങക്കെത്ര വില എഴുപത്തഞ്ച് രൂപ അപ്പം മുരിങ്ങക്കൊരു മൂന്നെണ്ണം മതി അത് തൂക്കൊന്നും വേണ്ട ഒരു രണ്ട് മൂന്നെണ്ണം അങ്ങനെ മൂന്നെണ്ണായിട്ടെടുത്താൽ മതി ശരി ഇത് മതി വേറൊന്നും വേണ്ട ആ അപ്പോൾ ബില്ലൊന്ന് പറഞ്ഞോളൂ എല്ലാം കഴിഞ്ഞിട്ടൊന്ന് പറഞ്ഞാതീട്ടാ ഞാൻ എടുത്ത് വെച്ചാൽ മതി ഞാൻ വന്ന് വാങ്ങിച്ചോളാം ആ ആ ആ ആ എടുത്ത് ആയി വേണ്ട വേണ്ട ഞാൻ വന്ന് വാങ്ങിച്ചോളാം ഞാൻ ഇപ്പത്തന്നെ വരും ആ ആ ഓക്കെ എന്നാൽ ശരി എന്നാൽ ഓക്കെ